ആ പിന്നേ ആ ഇവിടെ എനിക്കെ പിന്നെ കുടുംബമായിട്ട് ഇവിടെ പാലരുവി വാട്ടർഫാൾസ് ഒക്കെ ഒന്ന് കാണാൻ പോകണമായിരുന്നെ അതിന് ഓട്ടോയുടെ കാര്യം ചോദിക്കാനായിരുന്നു ഞങ്ങൾ മൂന്നു പേരുണ്ട് രാവിലെ ആറരയാകുമ്പോൾ പോവണം അതെ പിന്നെ ആറരയാകുമ്പത്തേക്ക് ഒന്ന് വരാൻ ഒക്കുമോ അത് ശരി എത്ര രൂപയാ ഫീ എത്ര രൂപയാകും അവിടം വരെ പോയി വരുന്നതിന്

അത് ശരി പിന്നെ അവിടെ അടുത്ത അടുത്ത കാലത്ത് എങ്ങാനും അവിടെ എങ്ങാനും പോയായിരുന്നോ അത് ശരി അത് ശരി അപ്പോൾ ഇതിന് അപ്പോൾ ഇത് ആ പറഞ്ഞ നിരക്കിൽനിന്ന് കുറയത്തില്ലയോ ആ അതുമതി മതി മതി അത് വേണം റോഡ് ഒക്കെ എങ്ങനെ ഉണ്ട്

ആ ഹലോ വരാൻ ആറര എ പിന്നെ ഏഴുമണിക്ക് മുമ്പേ നമുക്ക് പോവണം ആ ഞാൻ അപ്പോൾ ഏഴുമണിക്ക് അങ്ങനെയാണെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഹോട്ടലീന്ന് കഴിക്കാം എന്ന് വിചാരിച്ചെ അപ്പോൾ നമുക്ക് അവിടെ ഹോട്ടലീന്ന് കഴിച്ചേക്കാം അപ്പോൾ അത്ര ഹോട്ടലീന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇപ്പ് ആ ഉച്ചക്ക് ഊണ് അവിടെ ഹോട്ടലൊക്കെ ഉണ്ടോ സൗകര്യം ഉണ്ടോ ജോയ് കാലവസ്ഥ കാലാവസ്ഥ എങ്ങനെ ഉണ്ട് ആ ഇന്ന് മഴയായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഈ പറഞ്ഞ അതിപ്പം അതിന് ഓക്കെ താങ്ക് യൂ കൃത്യസമയത്ത് തന്നെ വരണം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താ